ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് വളരെയധികം വെല്ലുവിളികള് നേരി ട്ടിട്ടാണ് അത്യാവശ്യം നല്ല രീതിയില് വരച്ച് പഠിക്കാനും പിന്നേ കലയെ നല്ല രീതിയിലെത്തിച്ച് നല്ല രീതിയിൽ പാര്ട്ടിസിപ്പേറ്റേയ്ത് പ്രോഗ്രാമിനെല്ലാം പ്രൈസ് മേടിക്കാനുവൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അതിനിടയിൽത്തന്നെ കുറേ ബുദ്ധിമുട്ടുകള് അനുഭവിക്കേണ്ടിവന്നു പഠിക്കുന്ന കാലത്തായോണ്ട് വീട്ടില്നിന്നായാലും നീ ഡ്രോയിങ്ങിനൊന്നും പോകണ്ട അത് ഇത് പഠിത്തത്തിനെ ബാധിക്കും അതുകൊണ്ട് ഡ്രോയിങ്ങിനായാലും അങ്ങനെയൊക്കെ ഉള്ളെ ആയാലും പഠിത്തം കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് ചെയ്താല് മതി പഠിത്തത്തെ ബാധിക്കുന്ന ഒന്നും തൽക്കാലം വേണ്ട വെക്കേഷൻ സമയത്തെയ്യാനുള്ളത് കാര്യങ്ങളേ ഉള്ളു അത് അതുകൊണ്ടാ സമയത്താ ക്ക് ചെയ്താല് മതി അങ്ങനെ വീട്ടില്നിന്നായാലും പ്രചോദനം കിട്ടാതാവുകയും വീട്ടുകാര് എല്ലാരും എതിർക്കുകയും അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അതിന്റെ കൂടെത്തന്നെ ഒഴിവുസമയങ്ങള് ഞായറാഴ്ച്ച ക്ലാസ്സില്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ ഇരുന്ന് വരച്ച് പഠിക്കുകയും അങ്ങനെയൊക്കെ ഒക്കുന്ന പോലെയെല്ലാം മിനിമം വരച്ച് പഠിച്ചുപഠിച്ച് അത്യാവശ്യം എല്ലാ രീതിയിലുള്ള പടങ്ങളും വരയ്ക്കാൻ പഠിച്ച് നല്ല രീതിയില് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൂടാതെ തന്നെയീ ഡ്രോയിങ്ങിന് എസെൻഷ്യലായിട്ടുള്ളെ പാലറ്റ് ബ്രഷ് കളര് അതിന്റെയൊക്കെ ഏറ്റവും നല്ല രീതിയില് ചെയ്യണമെന്നുണ്ടെങ്കില് ഏറ്റവും നല്ല കമ്പനിയുടെ നോക്കി മേടിക്കണ്ട രീതികളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇച്ചിരി പ്രയാസമായിരുന്നു അത് ഏറ്റവും നല്ല കമ്പനിയുടെയൊക്കെ സാധനങ്ങള് മേടിക്കണമെങ്കില് ഏറ്റവും കൂടിയ റേറ്റിനേ കിട്ടത്തുള്ളു അതുകൊണ്ട് ഡിസ്കൗണ്ട് പോലും കി ട്ടണമെന്നില്ല എല്ലാങ്കൂടൊരുമിച്ച് മേടിച്ചാലും അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങള് കുറേ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് എല്ലാം തരണം ചെയ്ത് അവിടുന്ന് ഓരോത്തരുടെ

പിന്നീട് അങ്ങോട്ടു കുറച്ച് പ്രോത്സാഹനമൊക്കെ കിട്ടി ഒരു തരത്തില് വരയ്ക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് നല്ല കാര്യങ്ങളുമുണ്ടായിട്ടുണ്ട് അതുപോലെതന്നെ കൂടുതലുമിതുപോലെ വീട്ടില്നിന്നുള്ള സമ്മർദ്ദമായാലും പഠിക്കാൻ പഠിക്കേണ്ട സമയത്ത് പഠിച്ചാല്മതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായാലും അല്ലോരോ ബുദ്ധിമുട്ടായാലും സാധനങ്ങളുടെ ആയാലും ഇടയ്ക്കൊന്ന് കയ്യൊടിയൊക്കെ ചെയ്തായിരുന്നു അന്നേരം അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട് പിന്നെ വരയ്ക്കാൻ കഴിയാതായി പിന്നെ കുറച്ച് പൊറം വരയ്ക്കുന്നതില് പുറമോട്ടായി അങ്ങനെയൊക്കെയൊള്ള കുറച്ച് സംഭവങ്ങളുണ്ടായി ഇച്ചിരി വിഷമ ദുഃ ദുഃഖങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചു അതെല്ലാം തരണം ചെയ്തൊരുതരത്തിൽ വരയ്ക്കാനുള്ളൊരു കഴിവ് ഉണ്ട് അത് ക ചുമ്മാ കളയരുതെന്നുള്ള രീതിയില് വയ്യ കൈ വയ്യായിരുന്നപ്പോഴായാലും യൂ ട്യൂബ് നോ ക്കി വരയ്ക്കാൻ പറ്റില്ലേലും യൂ റ്റൂബ് നോക്കി വരയ്ക്കുന്നതൊക്കെ കണ്ടുപഠിച്ചും ബ്രഷ് എങ്ങനെ പിടിക്കുന്നേന്നു പഠിച്ചും പിന്നെ പിന്നീട് പിന്നീട് അത്യാവശ്യം നല്ല രീതിയില് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ദൈവസഹായംകൊണ്ട്